ഞാൻ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൻറെ മാതൃഭാഷ എന്ന് പറയുന്ന മലയാളമാണ് മലയാളം നമ്മൾ എന്ത് കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ സ്വന്തം ഭാഷയിൽ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളിലേക്ക് അതുൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് മറ്റുള്ള ഭാഷയൊക്കെ മറ്റുള്ള ഭാഷ തോഴിമാരും നമ്മുടെ ഭാഷ എന്താ പറയുക നമ്മുടെ ആത്മാവുമാണ് നമ്മുടെ ഭാഷയിൽ എന്തും പിന്നെ മനസ്സിലാക്കുമ്പോഴും വായിക്കുമ്പോഴാണെങ്കിലും അതിനോളം മനസ്സിലാക്കുന്ന വേറൊരു ഭാഷയില്ല വിദ്യാഭ്യാസം ആയാലും ശരി നമ്മുടെ ഭാഷയിൽ തന്നെ മലയാളത്തിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൻറെ ആശയം ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട് മറ്റുള്ള ഭാഷയെക്കാളും